എന്റെ ഭാഷയെന്നു പറയുന്നത് എന്റെ സംസാര ഭാഷയെന്നു പറയുന്നത് മലയാളമാണ് മലയാള ഭാഷയ്ക്ക് എപ്പോഴും ഒരു തനിമയുണ്ട് ഇപ്പോള് എന്താണ് അതുപോലെ തന്നെ ഇപ്പോള് ഈ മലയാള ഭാഷ എടുക്കുവാണ് എങ്കില് നമ്മടെ ഓരോ ജില്ലയിലും ഈ മലയാള ഭാഷ സംസാരിക്കുന്നത് സംസാരിക്കുന്ന ഉച്ഛാരണമെന്ന് പറഞ്ഞാല് പല രീതിയിലായിരിക്കും ഇപ്പോള് കോട്ടയംകാര് സംസാരിക്കുന്നതു പോലെ ആയിരിക്കണമെന്നില്ല തിരുവനന്തപുരംകാര് സംസാരിക്കുന്നത് തിരുവനന്തപുരംകാരുടെ സ്ലാങ്ങ് ആയിരിക്കണമെന്നില്ല അല്ലെങ്കില് കൊല്ലം കാരുടെതെന്ന് പറയുന്നത് അപ്പോള് ഒരു ഇപ്പോഴൊരു എക്സാംബിള് എടുക്കുവാണ് എങ്കില് ഇപ്പോള് നമ്മളൊരു ഞങ്ങള് കപ്പളങ്ങ എന്നു പറയുന്ന സാധനം പപ്പായാന്ന് പറഞ്ഞ സാധനം മറ്റ് സ്ഥലങ്ങളിലവര് പറയുന്നത് ചിലരു പറയും പപ്പരക്ക അല്ലെങ്കില് ഓമയ്ക്ക അല്ലെങ്കില് കപ്പളങ്ങ അങ്ങനെ പല ഇതിലാണ് അറിയുന്നത് അപ്പോള് ഈ ഭാഷ മലയാള ഭാഷ എന്ന് പറയുന്നത് തനിമയുള്ളതാണ് പക്ഷെ അത് ഓരോ ജില്ലകളിലും അല്ലേല് ഓരോ ആള്ക്കാരും പല സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് പണ്ട് ജോലി ചെയ്യുമ്പോള് ഈ പണ്ട് വയല് അല്ലെങ്കില് അങ്ങനെയുള്ള വയലുകളില് നെല് കൃഷി അങ്ങനെയുള്ള ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോള് അവരീ പാട്ട് പാടും ഈ നാടന് പാട്ടൊക്കെ പാടിയാണ് അവര് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് അവരുടെ ഉദ്ദേശം ആ ജോലിയില് നിന്നും കുറച്ച് റിലാക്സ് ആകുക അല്ലെങ്കില് ജോലി ഭാരം കുറയ്ക്കുക അങ്ങനെ ഉള്ളതൊക്കെ പക്ഷേ അവിടേയും അവര് ആ അവിടൊരു പാട്ട് കൊണ്ടു വന്നു മലയാളം എന്ന ഒരു ഭാഷ കൊണ്ട് പാട്ട് കൊണ്ടുവന്നു അവര് അവിടൊരു എന്താണ് അവരുടെ ജോലി ഭാരം കുറയ്ക്കാനായിട്ടു നോക്കുന്നു പിന്നീട് ഇപ്പോള് നമ്മള് നോക്കുവാണെങ്കില് ഇപ്പോള് സ്കൂളുകളിലൊക്കെ ഒരു മത്സരമായിട്ടത് മാറി അതായത് നാടന് പാട്ട് മത്സരം എന്നുള്ള രീതിയിലേക്ക് വന്നു അതായത് മലയാളം നാടന് പാട്ട് അപ്പോള് അതിനകത്ത് മലയാളമാണ് മലയാള ഭാഷയാണ് കൂടുതല് അങ്ങനെ ഒരുപാട്

മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാക്യാര് കൂത്ത് എടുക്കുവാണ് എങ്കില് നമുക്ക് കാണാന് സാധിക്കും മലയാള ഭാഷയുടെ അവര് ഉപയോഗിക്കുന്നത് അതായത് ആ ഒരു കലാരൂപം ചെയ്യുന്നതെന്നുവെച്ചാല് ഒരാളെ ചിരിപ്പിച്ചു കൊണ്ട് ചിന്തിപ്പിക്കുകയാണവിടെ ചെയ്യുന്നത് ശരിക്കും അപ്പോള് അവര് അതിനകത്ത് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് പാട്ടു പാടി പിന്നെ അതുപോലെ തന്നെ കോപമുള്ളിടത്ത് കോപം അതുപോലെ ചിരിക്കണടത്ത് ചിരിച്ച് അങ്ങനെ പല രീതിയില് ആ ഭാഷേനെ അവര് ആ ഒരു കലാരൂപത്തിനെ ഇങ്ങനെ കൊണ്ടു പോകുന്നുണ്ട് അതുപോലെതന്നെ ഓട്ടന്തുള്ളല് കഥകളി ഇതിലെല്ലാം ഭാഷ മലയാള ഭാഷ വളരെ മുന്നില്ത്തന്നെയാണെന്ന് നമുക്ക് പറയാന് പറ്റും അതുപോലെതന്നെ പഴയ ശൈലി ഉള്ള ഭാഷയാണ് ഈ മലയാളം എന്ന് പറയുന്നത് ഇന്ന് സംസാരിക്കുമ്പോള് ഇംഗ്ലീഷ് ഒത്തിരി ആള്ക്കാര് പറയുന്നുണ്ട് എങ്കിലും മലയാള ഭാഷയ്ക്ക് അതിന്റേതായ ഒരു തനിമയുണ്ട്